അടുത്ത മാസം എന്റെ ഹസ്ബന്ഡ് നാട്ടിൽ വരുവാണെ അന്നേരത്തേയ്ന് പുള്ളിയുടെ ബര്ത്ത് ഡേ ആണെ അപ്പഴ് ഞങ്ങളത് പുള്ളിയറിയാതെ ഞങ്ങളതെല്ലാം അറേയ്ഞ്ച്മെന്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളൊരു ഒരു കടയിൽ വിളിച്ചിട്ട് ഒരു കേക്കുവൊക്കെ അവിടെ അറേയ്ഞ്ച്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് എനിക്ക് നല്ല ഇത് ഒരാ അവിടെ ച് കയറിയതൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ബീച്ചിലോ അല്ലെൽ ഒരു ജടായു പാറയിലൊക്കെ ഞങ്ങൾക്ക് പോ പോകാൻ ഒരു ആഗ്രഹമുണ്ട് അത് പോയിട്ട് വന്ന് പോവാനൊക്കൊണ്ട് പിന്നേ എന്നാ പിള്ളേരും ഒക്കെ ഒരു ട്രിപ്പ് പ്ലാന് ചെയ്യുമ്പോഴ് പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളതത്ര കാര്യവായിട്ടൊന്നും എടുത്തിട്ടുവില്ല ഒന്നിച്ചൊന്നും ഇതുവരെ അങ്ങനെ പുറത്തൊന്നും പോയിട്ടൊന്നുവില്ല പക്ഷെ ഇപ്പം അങ്ങനെ പിള്ളേരും ഒക്കെ ഒന്നിച്ചൊന്ന് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ട് അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഞങ്ങള് പുള്ളിയറിയാതെ ഞങ്ങൾ അറേയ്ഞ്ച്മെന്റ് ചെയ്യുവാണെ അപ്പോൾ അത് പിന്നെ അന്നേരം പോകുന്ന വഴിക്ക് ഒരു സിനിമ കാണണം എന്നപ്പം നല്ലത് മോന് പറയുന്നത് നല്ലൊരു സിനിമ പോകുന്നുണ്ടമ്മേ ആവേശം നല്ല സിനിമയാണ് ആ അപ്പം അതിനും കൂടെ ഉള്ള ടിക്കറ്റും കൂടെയൊക്കെ ബുക്ക് ചെയ്ത് പിന്നെ ബുക്ക് ചെയ്യാനും അത് കാണാനും ഒക്കെ ഉള്ള ഒരാഗ്രഹമുണ്ട് അപ്പം അതിന്റെ അതിന്റെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നമ്പര് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് നിനക്കറിയാമല്ലൊ അതപ്പം അത് അത് പറയാൻ വേണ്ടിയിട്ടാണെ ഞങ്ങളിത് ചോദിച്ചത്